പച്ചക്കറിക്കിപ്പോൾ എന്താ വില

ഫ്രഷ് ആണല്ലോ

ആണോ എല്ലാം ജൈവവളം തന്നെയാ കീടനാശിനി ഒന്നുമില്ലല്ലോ ഇത് എവിടെയാണ് സ്ഥലം

പിന്നെ വയലിലാണോ അതോ വീട്ടുവളപ്പിൽ തന്നെയാണോ ആഹ് വീട്ടിലുണ്ടാ

ആഹ് ഇല്ല ഹോം ഡെലിവറി ആണോ അപ്പോൾ എങ്ങനെയാണ് ഡെലിവറി ചാർജ് ആഹ് കിലോമീറ്റർ അനുസരിച്ചാണോ മാനന്തവാടി മാനന്തവാടി ടൗണിൽ തന്നെ

ഡെലിവറി ചാർജ്

തക്കാളി ഒരു കിലോ പിന്നെ വെണ്ടയ്ക്ക ഉണ്ടോ ഒരു കിലോ വെണ്ടക്കയ്ക്ക് എത്ര ആയിരുന്നു ഇരുന്നൂറ് കിലോയ്ക്കോ അയ്യോ അതിത്തിരി കൂടുതലല്ലേ ആഹ് എന്നാൽ അത് അരക്കിലോ മതി പിന്നെയെന്താണ് ഉള്ളത് കിഴങ്ങിനെത്രയാ ഒരു കിലോ എന്നാൽ അതും അര മതി തക്കാളി ഇരുപത് അല്ലെ ആഹ് എന്നാൽ ഇത്രയും മതി മൂന്നെണ്ണം മതി തക്കാളി ഒന്നും മറ്റേത് രണ്ടും അര അര ആഹ് എടുക്കും എടുക്കും ഓക്കേ താങ്ക് യു ആയിക്കോട്ടെ